എൻ്റെ ബാല്യകാല സ്മരണകള് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഹൈ സ്കൂൾ പോകുന്ന കാലങ്ങളാണ് അതായത് സ്കൂളിൽ പോയി പഠിക്കുന്നത് കൂട്ടുകാരോടൊപ്പം ഇരുന്ന് പഠിക്കുന്നതും പിന്നെ ഇന്റർവെല്ലുകളില് അതായത് നമുക്ക് ക്ളാസിൽ ഇരിക്കുമ്പം ഇന്റർവെൽ ആകാറായോ ആകാറായോ എന്ന് നോക്കിയിട്ട് ഇന്റർവെൽ ആകുമ്പോഴത്തേക്കും പുറത്ത് ഇറങ്ങി കളിക്കുന്നതും പിന്നെ അവരോട് അതായത് ക്ളാസ്സിന്റെ ക്ളാസിൽ ടീച്ചറ് ക്ളാസ്സെടുക്കുന്ന നേരത്ത് സംസാരിക്കുന്നതും അതൊക്കെ അത് ഭയങ്കര രസമായിരുന്നു അന്നത്തെക്കാലത്ത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പത്തെപ്പോലെയല്ലല്ലോ നമുക്ക് ബാധ്യതകള് കാര്യങ്ങള് ഒന്നുമില്ല അപ്പോൾ നമുക്ക് സ്കൂളിൽ പോകണം എന്തെങ്കിലും പഠിക്കണം പിന്നെ വീട്ടില് വരണം ഭക്ഷണം കഴിക്കണം പിന്നെ പഠിക്കേണ്ടത് പഠിക്കണം കിടക്കണം ആ ഒരു രീതിയിലുള്ള ഒരു മൈൻഡ് ആയിരുന്നല്ലോ അന്ന് അപ്പോഴെന്ന് വെച്ചാൽ ഫുൾ ഫ്രീഡം ആയിരിക്കും പക്ഷെ ഇപ്പത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ബാല്യകാലം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും നല്ലത് നല്ലതാണെന്ന് തോന്നുന്നത് പിന്നെ ബാല്യകാലമൊക്കെ നമ്മള് എത്ര ചിന്തിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് തിരിച്ച് കിട്ടാത്ത ഒരു കാലമാണ് അപ്പോൾ എൻ്റെ ബാല്യകാല സ്മരണകള് അതൊക്കെത്തന്നെയാണ് എൻ്റെ സ്കൂൾ ലൈഫ് ആണ് എനിക്ക് ബാല്യകാലസ്മരണകളെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് ഇതാണ്